പക്ഷെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു റൈക് റോക്ക് ക്ലൈമ്പിങ്ങ് എക്സ് എക്സ്പീരിയൻസ് ഉണ്ട് അത് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ കർണാടകയിലായിരുന്നു അത് കുറച്ച് മുള്ളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ആദ്യം കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടെ ഒരു പ്രത്യേക തരം ചെടിയുണ്ട് അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കയറാനുള്ള ചാൻസുണ്ട് അപ്പം അത് കു ച്ച് പാടായിരുന്നു ആ ഒരു കടമ്പ കടക്കാനായിട്ട് ആ ഒരു മുള്ളിൻ്റെ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കില്ല പിന്നെയുള്ളതെന്ന് പറയുമ്പം നമ്മൾ പരസ്പരം കൈ കോർത്തൊക്കെയാണ് കയറിപ്പോയത് കുറച്ച് റിസ്കി ആയിരുന്നു നമുക്ക് സേഫ്റ്റി മെഷർമെൻറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എന്ന് വെച്ചാൽ അധികം സ്റ്റീപ്പല്ലായിരുന്നു കുത്തനെ ഉള്ളതായിരുന്നില്ല ആ ഒരു പ്രദേശമെന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം കൈ പിടിച്ചും അല്ലാതെ വേറെ മരച്ചില്ലകളിലൊക്കെ പിടിച്ചൊക്കെയാണ് കയറിയത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം അങ്ങനെ പേടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഊർജം ഒരുപാട് പോയിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടെ ഉണ്ടായിരുന്നുള്ളു എന്നാലും കുറച്ച് ഉയരം കൂടിയ പാറകളിലൊക്കെ ചവിട്ടി കയറാനായിട്ട് കുറച്ച് പാടായിരുന്നു ആദ്യമൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ പരസ്പരം ഒക്കെ ഹെൽപ്പ് ചെയ്ത് കയറി പിന്നെ ഈ പറഞ്ഞ പോലെ അവസാനം നമ്മൾ ഒരു ടോപ് റീജിയണിൽ എത്തിയിട്ട് താഴോട്ടൊന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ നമുക്ക് ഭയങ്കര സന്തോഷമാണത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലായിരുന്നു